ആ ചേട്ടാ ഞാൻ ഇന്നലെ ക്യാബ് ബുക്ക് ചെയ്തതായിരുന്നു നാളെ കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോകാൻ അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് വന്നിട്ട് പുലർച്ചെ മൂന്ന് മണിക്കാണ് അപ്പോൾ ചേട്ടൻ അതിനുമുമ്പ് ഇവിടെ എത്തണം നമുക്ക് അവിടെ മൂന്ന് മണിക്ക് എത്തണം അപ്പോൾ അതിന് കുറച്ചു മുമ്പ് തന്നെ ചേട്ടൻ എത്തി ഇവിടുന്ന് പോകണം അപ്പോൾ പാലക്കാട്ട് നിന്ന് കോഴിക്കോട്ടേക്ക് എന്തായാലും ഒരു രണ്ടു മണിക്കൂർ എങ്ങനെയും ആ മാക്സിമം രണ്ടര മണിക്കൂർ എടുക്കായിരിക്കും അപ്പോൾ ഞാൻ പോകുന്നത് രാത്രി ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും റോട്ടിൽ ഇല്ല ഉണ്ടാകില്ല അപ്പോൾ ചേട്ടൻ കുറച്ച് നേ നേരത്തെ വരേണ്ടിവരും മൂന്നുമണിക്ക് ഫ്ലൈറ്റ് പറയുമ്പോൾ ചേട്ടൻ എന്തായാലും ഇപ്പോൾ നമുക്ക് എന്തായാലും ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടരക്ക് ഇറങ്ങാന്ന് വെച്ചാൽ അങ്ങട്ട് എത്താം ചേട്ടൻ എങ്ങ ചേട്ടൻ അപ്പോൾ കുറച്ച് നേരത്തെ വന്നാച്ചാ നമുക്ക് അങ്ങനെ നേരത്തെ പോകാം അപ്പം മൂന്നു മണിക്ക് എയർപോർട്ട് എത്തി നമുക്ക് കസിൻസ് ഉണ്ട് അപ്പോ അവര് പിക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും ഒരു ആറു മണിയാവുമ്പോൾ എത്താൻ പറ്റും അപ്പോൾ ചേട്ടൻ ഒരു പന്ത്രണ്ടരയ്ക്ക് ഇവിടെ എത്തിയാൽ മതി പന്ത്രണ്ടരയ്ക്ക് എത്തിയാച്ചാ നമുക്ക് അങ്ങനെ പോകാൻ പറ്റും ആ ഞാൻ തന്നെ ഉണ്ടാകും അപ്പോൾ ചേട്ടൻ എന്നെ വിളിച്ചാൽ മതി വരുമ്പോൾ ഞാൻ ഇവിടെ നമുക്ക് അങ്ങനെ പോകാം ഇവിടുന്ന് ഞാൻ മാത്രേള്ളൂ പിന്നെ എയർപോർട്ടിന്ന് അവര് വന്നിറങ്ങുമ്പോ അവരെ പിക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനെ വീട്ടിലേക്ക് വരണം അത്രേള്ളൂ അപ്പോൾ ചേട്ടൻ അങ്ങനെ എത്തുമ്പോൾ പറഞ്ഞാൽ മതി ആ ശരി ചേട്ടാ